വയനാട് ജില്ലയിലെന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ് ഏറ്റവും കൂടുതൽ കാർഷികമായിട്ട് മുൻപിൽ നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് വയനാട് എന്നുപറയുന്നത് പച്ചപ്പുകൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഒരു ജില്ലയാണ് ഞങ്ങളുടെ വായനാടെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റോം കൂടുതൽ വിളവെടുക്കുന്ന വിളകൾ എന്ന് പറയുന്നത് അരിയും ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങളാണ് പഴവർഗ്ഗങ്ങളൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് ഏറ്റോം കൂടുതൽ നമ്മളീ രോ ഈ നാട്ടിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് പഴവർഗ്ഗങ്ങളുടെ വിളവെടുപ്പും അതുപോലെ ആ വയലുകളിൽ അരി കൃഷീം എല്ലാമാണ് നമുക്ക് നെല്ല് കൃഷി ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും ആൾക്ക് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നത് കൃഷിന്ന് പറയുന്നത് നെൽകൃഷിയും അതുപോലെതന്നെ പഴവർഗ്ഗങ്ങൾ പിന്നെന്താണ് പറയുന്നത് പുകയില ധാന്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം നെല്ല് കൃഷിയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ തന്നെ ഈ നെല്ലുകൃഷി എന്ന് പറയുന്നത് ഒരുപാട് കാലത്തേ ഇപ്പം ചിങ്ങമായി ഇപ്പം ചിങ്ങമാസത്തിലെ കർഷകൻ്റെ കർഷക നമുക്ക് ചിങ്ങമെന്ന് പറയുന്നത് നെല്ലിടുന്ന സമയമാണ് നെല്ല് അതായത് കണ്ടൊക്കെ കുഴിച്ച് കണ്ടൊക്കെ ഉഴുതുമറിച്ച് അതുപോലെ മഴയൊക്കെ പെയ്ത് നല്ല ഇതായിക്കഴിയുമ്പോൾ വിത്തുവിതച്ച് അത് കഴിഞ്ഞ് അത് വിത്തുവിതച്ച് അത് മുളച്ച് വന്നുകഴിയുമ്പോൾ കുറെക്കാലങ്ങൾ കുറച്ചുനാളു കഴിഞ്ഞിട്ട് അത് പറിച്ച് ഞാറുനടലൊക്കെ കഴിഞ്ഞ് പിന്നെ കർഷകൻ കാത്തിരിക്കുവാണ് ഇത് വലുതാകുന്നതുവരെ അതൊരു ഒരു നാളുവരെ സമയമുണ്ട് മലയാള മാസത്തിൽ ഒരു മാസം വരെ എത്തുമ്പോൾ ആ ഒരു സമയം ഇത് നെല്ലൊക്കെ വലുതായി വലിയ കൃഷി ചെയ്ത് നമുക്ക് നെല്ല് കൊയ്യാറാകുമ്പം ആ ഒരു സമയത്ത് എത്തുമ്പോൾ എന്താകും നെല്ല് കൊയ്തെടുത്ത് നമ്മുടെ പണ്ടൊക്കെ പണ്ടൊക്കെ നെല്ല് കൊയ്തെടുത്ത് അത് വിറ്റ് ഒക്കെയാണ് അത് ഇതാകുന്ന രീതിയെന്ന് പറയുന്നത് മെതിക്കുന്ന രീതിയെന്ന് പറയുന്നത് അതെന്താണ് പറയാ കൈ ആൾക്കാരെ വിളിച്ച് പണിക്കാരെ നിർത്തിയിട്ട് കൈ വെച്ച് ചെയ്യിക്കയായിരുന്നു കൈ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് നെല്ലെടുക്കുന്ന പരിപാടി ആയിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ കാലം ഒരുപാട് മാറി മാറി വന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നെല്ല് കൊയ്തെടുക്കാൻ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ രീതികൾ വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന കൊയ്ത്ത് മെഷീൻ പിന്നങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ഒക്കെ ഈ പറയുന്ന പോലെ ധാന്യങ്ങൾ വിളവെടുപ്പിനും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത്